പുസ്തകങ്ങള്ക്ക് പുറമേ ഞാൻ ഉപയോഗിക്കുന്ന കഥ മാസികകൾ ബ്ലോഗുകൾ പത്രങ്ങൾ ഒക്കെ ഉണ്ട് അതിൽ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ ആരോഗ്യമാസികയെ കുറിച്ചൊക്കെ വായിക്കാറുണ്ട് കര്ഷകശ്രീ അതുപോലെയുള്ള മാസികകളെ കുറിച്ചൊക്കെ വായിക്കാറുണ്ട് പിന്നെ കൃഷി സംബന്ധമായ വ്ളോഗുകൾ എന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മേഖലയാണ് കൃഷി സംബന്ധമായ മേഖല അതുപോലെ ഫിഷിംഗ് ഫിഷിങ്ങിനെ സംബന്ധിച്ചുള്ള വ്ളോഗുകൾ ഒക്കെ ഞാൻ കാണാറുള്ള വ്യക്തിയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന രണ്ടു ഘടകങ്ങൾ ഒന്ന് കൃഷി ഒന്ന് ഫിഷിംഗ് വ്ളോഗുകൾ ഫിഷിംഗ് ചെയ്യാറും അതൊക്കെ കണ്ടുകൊണ്ട് ഫിഷിംഗ് ചെയ്യാറുമുണ്ട് അതുപോലെ തന്നെ പത്രങ്ങൾ സ്ഥിരമായിട്ട് പത്രം അങ്ങനെ വായിക്കാനുള്ള സമയം നമ്മൾക്ക് കിട്ടാറില്ല കൂടുതലും മൊബൈലിലൂടെയുള്ള ന്യൂസുകൾ കേള്ക്കുന്നത് കൊണ്ട് പത്രങ്ങൾ വായിക്കുക അറിഞ്ഞാല് പല സാന്ദര്ഭങ്ങളിൽ സമയം കിട്ടുമ്പോഴൊക്കെ പത്രങ്ങൾ വായിക്കാറുണ്ട് അതിനെ കുറിച്ചൊക്കെ അറിയാറുണ്ട് അപ്പം കൂടുതലായിട്ടും ഇതുപോലെയുള്ള വ്ളോഗുകൾ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അറിവില്ലാത്ത പല ഓരോരുത്തരുടേതായ കൃഷി രീതികളും വ്യത്യസ്തമായ അനുഭവങ്ങളും ഒക്കെ കാണാറുണ്ട് പിന്നെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ ഉള്ള അനുഭവങ്ങൾ ഓരോരുത്തര്ക്കൊക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ള പൊതുവായിട്ടുള്ള അറിവുകൾ ഇതൊക്കെ ഞാൻ അങ്ങനെ ഒക്കെ കണ്ടും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം മാസികകളെന്ന് പറഞ്ഞാൽ മറ്റുള്ള മാസികകളെ ഒന്നും അങ്ങനെ ഞാൻ അധികം താല്പര്യപ്പെടുന്നില്ല കൂടുതലായിട്ടും ഇങ്ങനെയുള്ള മാസികകൾ പിന്നെ ആത്മീയ പ്രസിദ്ധീകരണങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വായിക്കാറുള്ളത് ആ ഒരു രീതിയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചു മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്